ഹലോ ഇത് സ്വിഗി കസ്റ്റമർ കെയർ അല്ലെ ഞാൻ ചിത്ര ആയിരുന്നു വിളിക്കുന്നത് ഉച്ചക്ക് പന്ത്രണ്ടുമണിക്ക് ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തത് എനിക്ക് ഉച്ചക്ക് ഒരു മണിക്കത്തേന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ഞാൻ ഓർഡർ ചെയുമ്പത്തേന് എനിക്ക് അര മണിക്കൂറ് അല്ലങ്കിൽ മുക്കാൽ മണിക്കൂറ് ഇതിനുള്ളിൽ എനിക്ക് ഫുഡ് കിട്ടുന്നതാണ് ഇപ്പോൾ സമയം ഒന്നേ മുക്കാലായി ഒന്നേ മുക്കാൽ മണിക്കൂറോളം എനിക്ക് ലേറ്റ് ആണ് ഇത് വരെ ആയിട്ടും ഫുഡ് ലഭിച്ചിട്ടില്ല അപ്പം എന്താണ് ലേറ്റ് ആണ് ഫുഡ് ലേറ്റാകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഈ എനിക്ക് സാധാരണ ഇത്രയും കൃത്യനിഷ്ടമായിട്ട് എനിക്ക് ഫുഡ് കിട്ടികൊണ്ടിരുന്നാൽ ഞാൻ ഓർഡർ ചെയുമ്പത്തേന് എല്ലാം എനിക്ക് കൃത്യനിഷ്ടമായിട്ട് എനിക്ക് എനിക്ക് ഫുഡ് കിട്ടികൊണ്ടിരുന്നതാണ് ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇതുപോലെ ഫുഡ് ലേറ്റ് ആകുന്നത് അപ്പം അതിൻ്റെ കാരണം എന്തു കൊണ്ടാണെന്ന് അറിഞ്ഞാൽ കൊള്ളമായിരുന്നു ഇനി സ്റ്റാഫിൻ്റെ ഒരു കൃത്യനിഷ്ഠത കൊണ്ടാണോ അങ്ങനെ ഉണ്ടാകുന്നത് എന്നോ അല്ലെങ്കിൽ ഫുഡ് റെഡി ആകാഞ്ഞിട്ടാണൊ എന്ന് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളമായിരുന്നു ഇപ്പം സമയം ഉച്ച് ഒരു മണിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ മുക്കാൽ മണിക്കൂറ് ലേറ്റ് ആണ് നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണത്തിനു വേണ്ടിയല്ലേ ഈ വിളിക്കുന്നത് നേരത്തെ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കൃത്യനിഷ്ഠത ഇല്ലാത്ത കാരണം എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു